നമ്മുടെ പള്ളിയിൽ തന്നെ ജാസെന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് സംഘടനയില് വളരെ നല്ലതായിട്ടുള്ള ചാരിറ്റിയും അതുപോലെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റി പോലെ തന്നെ നമ്മള് ക ക്യാഷ് കളക്റ്റ് ചെയ്യാനും അതുപോലെയൊക്കെ ആവശ്യമുള്ളവർക്ക് ലോണ് കൊടുക്കാനുമൊക്കെ സഹായിക്കുന്നുണ്ട് നല്ലൊരു സംഘടന തന്നെയാണ് ജാസ് അതുപോലെ തന്നെ ചെറിയ ചെറിയ അയൽക്കൂട്ടങ്ങൾ ഒരു പത്തുപതിനഞ്ച് പേര് ചേർന്ന് കൂടി അവരുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങള് അതില് നിക്ഷേപിച്ച് അവർക്കാവശ്യമുള്ളപ്പോള് അതില്നിന്ന് ലോണൊക്കെ ആയിട്ടെടുത്ത് നല്ലൊരു സഹായം തന്നെയാണ് അത് ഒരു കല്യാണമാണെങ്കിലും ഒരു എന്തേലും അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വരുവാണെങ്കില് അവർക്കതിൽ നിന്ന് ലോൺ എടുക്കാം ചെറിയൊരു ഇൻറ്ററെസ്റ്റ് മാത്രമേ അതിൽ വരുന്നുള്ളു അത് വളരെയേറെ നല്ലൊരു സംഘടന തന്നെയാണ് ചെറിയ ചെറിയ ചെറിയ അയൽക്കൂട്ടങ്ങളോ ഒരാൾക്ക് രണ്ട് മൂന്ന് അയൽക്കൂട്ടങ്ങള് തന്നെ ഉണ്ട് അതുപോലെ നമ്മുടെ സഹകരണ സംഘങ്ങള് അവിടെ അതും നമുക്ക് ചെറിയ ചെറിയ ഡെപ്പോസിറ്റുകൾ അതില് നിക്ഷേപിച്ചിട്ട് അതീന്ന് ചെറിയ ചെറിയ ഇൻട്രസ്റ്റുകള് ചെറിയ അത്യാവശ്യ ഇൻട്രസ്റ്റുകൾ കിട്ടുന്നുണ്ട് അത് മേടിക്കുക അത് മേടിച്ച് നല്ല രീതിയില് മുന്നോട്ട് കൊണ്ടു പോവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ആ സംഘടനയിൽ നിന്നുകൊണ്ടുതന്നെ ലോണെടുക്കാനും നമ്മുടെ ആവശ്യങ്ങള് വിനിയോഗിക്കുവാനും എല്ലാത്തിനുമായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്കുള്ള തൊഴിലിനുവേണ്ടി എന്തൊക്കെ അവസരങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ ഈ അയൽക്കൂട്ടങ്ങളിൽ തന്നെ സ്ത്രീകള് തന്നെയാണ് അതിന് പ്രസിഡൻറ്റ് സെക്രട്ടറി എന്നിവ അതില് വരുന്നുണ്ട് അവരതില് നല്ലൊരു അവരുടെ ഒരു നല്ലൊരു എന്താ പറയുക അവരുടെ കഴിവുകളെല്ലാം അതിൽ തന്നെ അവര് സമർപ്പിക്കുന്നുണ്ട് സ്ത്രീകൾക്കു തന്നെ അതിൽനിന്നു തന്നെ ക്യാഷിയറായിട്ടും അതുപോലെന്നെ കളക്ഷൻ എജൻറ്റായിട്ടുമൊക്കെ അതിൽ നിന്ന് വർക്കെയ്യാൻ സാധിക്കും അത് ഒരു വിധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിൽ നല്ലൊരു അഭിപ്രായം നല്ലൊരു ജോ ജോലി സാധ്യത തന്നെ അതിൽ തന്നെ ഉണ്ട് അവർക്ക് ഒരു ക്യാഷിയറായിട്ട് പോവാം അല്ലെങ്കില് പ്രസിഡൻറ്റ് സെക്രട്ടറി അങ്ങനെ ഒരുപാട് സ് തസ്തികകള് വരുന്നുണ്ട് അപ്പോള് അതിലവർക്ക് നല്ലൊരു അവരുടെ കഴിവിനനുസരിച്ച് അവർക്കതില് പ്രവർത്തിക്കാൻ സാധിക്കും തൊഴിൽ അവർക്ക് നല്ലൊരു തൊഴില് വേണം സ്ത്രീകൾക്കും തൊഴില് വേണം തൊഴിൽ ചെയ്യണം പിന്നെ പുരുഷന്മാര് മാത്രമല്ല ജോലിക്കു പോവേണ്ടത് സ്ത്രീകളും ജോലിക്കു പോകണം ജോലിക്കു പോയി അവരവർക്കുള്ള ആവശ്യത്തിനുള്ള അവർക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോള് ഒരു എന്താ പറയുക അവരുടെ ഭർത്താവിൻറ്റടുത്ത് ചോദിച്ച് മേടിക്കുക അതിനേക്കാളിലും നല്ലത് അവരുടെ ക കയ്യിൽ ഒരു പതിനായിരം രുപയായാലും അവരുടെ കയ്യിൽനിന്നു തന്നെ അവർക്കു സമ്പാദിച്ചുകഴിഞ്ഞാല് അവർക്കതിൽനിന്ന് അവരുടെ ഇഷ്ടത്തിന് വിനിയോഗിക്കാൻ പറ്റും ഇപ്പോള് ഒരു ഫോൺ റീചാർജെയ്യാനായാലും അതിന് അപ്പനെ സമീപിക്കുക അല്ലെങ്കില് ഹസ്ബൻഡിനെ സമീപിക്കുക അതല്ല അതിന് അനുബന്ധി അതിന് അതിന് വേറെ നമുക്ക് നമ്മുടെ സ്വന്തം വരുമാനം സ്വന്തം സ്ത്രീകൾക്കുള്ള അത് സ്വന്തം വരുമാനത്തിൽനിന്നുകൊണ്ടുതന്നെ അവർക്കു ചെയ്യാം അപ്പോള് സ്ത്രീകള് ജോലിക്ക് പോകണം ഇപ്പോള് ഇതുപോലെ സഹകരണ സംഘങ്ങളുണ്ട് ചെറിയ ചെറിയ അയൽക്കൂട്ടങ്ങള് അതുപോലെ തന്നെ ജാസ് ജാസിലാണേലും ഇവിടെ പുരുഷന്മാരാണ് ഉള്ളത് പക്ഷെ അതില്നിന്നൊക്കെ മാറി നമുക്കതിലോട്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തി അതിൻ്റെ ചുമതലകളവർക്ക് കൊടുത്ത് അവരും അതില് മുന്നോട്ടു വരാനായിട്ട് പ്രതേകം ശ്രദ്ധിക്കുക അവർക്കും വളരെ അവസരങ്ങള് നൽകി അതിനെ മുന്നോട്ടുകൊണ്ടുപോകണമെന്ന് തന്നെയാണ് നല്ലൊരഭിപ്രായം സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കുക സഹകരണ സംഘങ്ങളിലായാലും ചില അയൽക്കൂട്ടങ്ങളിലായാലും അവർക്കതൊരു തൊഴിലായിട്ട് തൊഴിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ അതിൽ തന്നെ ഉണ്ട് അപ്പോള് അവരതിൽ മാക്സിമം അവരതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം അതു തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോള്